ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക എന്നു പറഞ്ഞാൽ നമ്മുടെ ടെലിഫോൺ ഫോൺ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ആ ഫോണിനകത്തെ ഏറ്റവും അധികമായി വരുന്നത് ഗുണ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത് ഗുണം നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഗുണം ഫോൺ ഉപയോഗിക്കുകയും നമ്മുടെ ഇപ്പം തന്നെ നമ്മൾ ടെലിഫോൺ കൊണ്ട് നമ്മുടെ വാട്സപ്പിലൊക്കെ മെസേജ് കൊടുത്താൽ ഇവിടേ നിന്നു ദൂരെ ഇരിക്കുന്നവരെ മെസേജ് നമുക്കു വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യും അതൊക്കെ നല്ല കാര്യങ്ങളാണ് പക്ഷെ വേറെ കാര്യമുള്ളത് എന്താ വെച്ചാൽ അതിനെ ദുരുപയോഗം ചെയ്യുന്ന ഒരുപാടു പേരുണ്ട് അതുകൊണ്ടു നമ്മൾ കഴിവതും കൂടുതലും നമ്മുടെയീ കോവിഡ് കാലം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ടെലിഫോണിൻ്റെ ഉപയോഗം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്കങ്ങായിപ്പോയി കുഞ്ഞുങ്ങൾ ഒരുപാട് വ്യത്യാസപ്പെട്ടുപോയി ഒത്തിരി അവരുടെ മാർഗ്ഗങ്ങൾ തന്നെ നശിച്ചു അതായത് ഈ അടുത്തകാലത്ത് പലപ്പോഴും നമ്മുടെയീ ന മ ഫോണിൽ ഗെയിം എടുക്കുക ഗെയിമെടുത്തു കഴി കളിക്കുക നമുക്ക് കൊച്ചു കുഞ്ഞുങ്ങൾ പ്രായമായവർക്ക് അതൊന്നും അറിയാൻ പറ്റത്തില്ല അപ്പോൾ കൊച്ചുങ്ങൾ എന്താണ് എടുക്കുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല പിള്ളേർക്കു പെട്ടെന്നു മനസ്സിലാകും എൻ്റെയൊരു കൊച്ചു കുഞ്ഞുണ്ടെങ്കിൽ അതിന് ടച്ച് ഫോണിലെ അവനത് ഫോൺ വിളിക്കാനും എടുക്കാനും കുത്താനുമൊക്കെ അവനറിയാം എനിക്കറിയത്തില്ല എനിക്കിത്രയും പ്രായമായ എനിക്കതു കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല ഞാൻ സാധാരണ ഫോണാണ് ഉപയോഗിക്കുന്നത് എൻ്റെയൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ ഇൻ്റർനെറ്റിൻ്റെ വളർച്ചകൾ നമുക്ക് സാങ്കേതിക വിദ്യ വളരെ വളർന്നിട്ടുണ്ട് അത് നമുക്ക് പലപ്രദമായി പലകാര്യങ്ങളും നമ്മുടെ ഓഫീസിലെ ഫയലുകളെ അതുപോലെതന്നെ നമ്മുടെ ജീവിത രേഖകൾ സൂക്ഷിക്കുന്നത് അങ്ങനെ പലകാര്യങ്ങളും നമ്മൾ സൂക്ഷിക്കാനായിട്ടും നമുക്ക് ഒക്കുന്നില്ലെങ്കിൽത്തന്നെ നമ്മൾ ഈ പിന്നെ അല്ലെ അങ്ങനത്തെയുള്ളതു പോയിക്കഴിഞ്ഞ് നമുക്കത് സൂക്ഷിച്ചെടുത്തു വെയ്ക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതു വലിയ ഒരു ഉപയോഗമാണ്